ആ ഹലോ ആരാണിത് അതെ ആരാണിത് പറഞ്ഞോളു പൊന്നൻ

ആണോ എന്ന് എന്തേലും ആലോചിച്ചിട്ടാണോ ഓ ഓക്കെ ഓക്കെ താങ്കളിപ്പം എന്താ ചെയ്യുന്നത് എന്ത് വക്കാ ചെയ്യുന്നത് പഠിക്കുകയാണോ അതോ വേക്ക് ചെയ്യുകയാണോ ആണല്ലേ എന്ത് റിലേറ്റഡ് വർക്കാണ് ആണല്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ ഉറപ്പിക്കാനുള്ള ടൈം ഒക്കെ കിട്ടാറുണ്ടോ

ഓക്കെ ഓക്കെ മനസ്സിലായി ഓക്കെ ഓക്കെ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ടോ ആ ആണല്ലേ ഓക്കെ ഓക്കെ എന്താ പറഞ്ഞാലേ നമുക്കിപ്പോൾ താങ്കളുടെ വീട് എവിടെയാണ് വരുന്നത് കൊച്ചിയിൽ നമ്മുടെ എൻ്റെ ഓഫീസിപ്പോൾ ബിൽഡിങ്ങ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഭാഗത്താണ് താങ്കളും ഇപ്പം പോയ എല്ലാവർക്കും വേക്കായ കാരണം എപ്പോഴാണു ഫ്രീയാവുന്നത് അപ്പോൾ വന്ന് എന്നെ വന്ന് കാണ് തൽക്കാലത്തേക്ക് ഞാനൊരു കാര്യം പറയാം എന്താ ഒരു ഈ ഒരു വേക്ക് കഴിഞ്ഞ് വരുമ്പോൾ അധികം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓവർ സ്ട്രെസ്സ് ചെയ്യാണ്ട് അതിനെപ്പറ്റി ആലോചിക്കാണ്ടിരിക്കുക പിന്നെ ബോസ് ഈ പറഞ്ഞപോലെ തരുന്ന വേക്ക് സ്ട്രസ്സ്ഫുൾ ആണെങ്കിൽ അത് അത്രയും കാമായിട്ടെടുക്കാൻ നോക്കുക ആ ഒരു കാര്യത്തിനെപ്പറ്റി വീട്ടിൽ വന്ന് ആലോചിക്കാണ്ട് താങ്കള് മാരീഡാണോ അല്ലെങ്കിൽ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവരോടൊപ്പം മാക്സിമം എഞ്ചോയ് ചെയ്യു പിന്നെ ഓഫീസിലെ കാര്യം ഓഫീസിൽ ലിമിറ്റ് ചെയ്യുക അത് അധികം വന്നാൽ വീട്ടിലോ അതോ ഫ്രണ്ട്സിൻ്റെടയ്ക്ക് വന്ന് പറയാണ്ടിരിക്കാൻ നോക്കുക അത് സ്ട്രെസ്സൊക്കെ ഓഫീസ് വരെ മതി അത് കഴിഞ്ഞാൽ താങ്കൾക്കായിട്ടുള്ള സ്വന്തം ടൈമ് സ്പെൻഡ് ചെയ്യുക അപ്പോൾ തനിയേ ഉള്ള സ്ട്രെസ്സൊക്കെ തനിയേ കുറഞ്ഞോളും ടെൻഷനൊക്കെ തനിയേ കുറഞ്ഞോളും പിന്നെ ബാക്കി ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു പോ ആ പറഞ്ഞോളു അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊന്ന് ഒരാഴ്ച്ച ചെയ്തു നോക്കൂ എന്നു പറഞ്ഞാൽ ഓഫീസിലെ വേക്ക് ഓഫീസിൽ എപ്പം അവിടെ നിന്നിറങ്ങുന്നോ അവിടെ നിർത്തുക പിന്നെ അതിനെപ്പറ്റിയിട്ടുള്ള കാര്യം വീട്ടിൽ വന്ന് ആലോചിക്കാൻ നിൽക്കരുത് അത് ഒരു ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്തു നോക്ക് ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ താങ്കളൊന്ന് എന്നെ വന്ന് കാണു ആ വിളിച്ചോ വിളിച്ചോ ഒരു കുഴപ്പവും ഇല്ല എപ്പം വേണമെങ്കിലും വിളിച്ചോ രാത്രിയാണെങ്കിലും മടിക്കേണ്ട എപ്പം വേണമെങ്കിലും വിളിച്ചോളു നാളെയെന്നല്ല ഇന്ന് മുതലത് തുടങ്ങിക്കോളു ഇന്നിപ്പം എന്തെങ്കിലും വേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വിധം ഒന്ന് തീർത്തിട്ട് ഒരു പത്തു മിനിറ്റിലോ ഇരുപത് മിനിറ്റിലോ എന്തെങ്കിലും ആവശ്യത്തിൽ വർക്കാണെങ്കിൽ തീർത്തിട്ട് ഇന്നുതന്നെ നിർത്തൂ എന്നിട്ട് ബാക്കി ഉള്ള ടൈമ് താങ്കളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യു ഓക്കെ എന്നിട്ടും ഒരു വീക്ക് കഴിഞ്ഞിട്ടും ഉറക്കത്തിലൊന്നും ഒരു ചേയ്ഞ്ചും ഇല്ലെങ്കിൽ ഒന്നുതന്നെ വന്ന് കാണുമോ നമുക്കപ്പം ആലോചിക്കാം മെഡിക്കേഷൻ്റെ കാര്യം അപ്പം ആലോചിക്കാം

ആ ഈ നമ്പറിൽ വാട്സപ്പുണ്ടോ ഓക്കെ ഞാനെന്നാൽ ഈയൊരു നമ്പറിലേക്ക് എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം എൻ്റെ ആ ഫോൺ ഒന്നിവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോയ്മെൻ്റ് എടുക്കേണ്ടി വരും ഇത് ജസ്റ്റൊന്ന് പറഞ്ഞാൽ മതി അവരോട് ഞാൻ പേര് നോട്ട് ചെയ്ത് വയ്ക്കാം റേയ്റ്റ് കുഴപ്പമില്ല നമുക്ക് പിന്നെ ഡിസ്കസ്സ് ചെയ്യാം അതെ അതെ അഫോഡബിളാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം എന്നാൽ ഒന്ന് ഒരു വീക്ക് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് പറയൂ കേട്ടോ ഓക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞോളൂ എന്ത് മാറ്റമാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞോളു ഓക്കെ ഓക്കെ ശരി അപ്പോൾ ഓക്കെ